ഇന്നത്തെ കാലങ്ങളിൽ വിവാഹ ദിവസങ്ങളിൽ അതായത് വിവാഹ വേദികളിൽ സംഗീതവും നൃത്ത്യവും ഒക്കെ നിലനിൽക്കുന്ന ഒരു കാലമാണ് എന്നുള്ളത് സംഗീതവും നൃത്തവും വിട്ടുകൂടാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് ആസ്വദിക്കാനും അതുപോലെതന്നെ സംഗീത നൃത്ത്യ പരിപാടികളിൽ ഏർപ്പെടുവാനും ഒരുപാട് ഇഷ്ടമുള്ള സമൂഹമാണ് ഇന്ന് നിലകൊള്ളുന്നത് സംഗീതമായാലും ഇപ്പോഴെന്താ പറയുക ക്ലാസ്സിക്കൽ സംഗീതങ്ങളും അതുപോലെതന്നെ അതിനനുസരിച്ചുള്ള നൃത്ത്യങ്ങളും ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് നൃത്ത്യങ്ങൾക്ക് അനുയോജ്യമായ ഗാനങ്ങൾ എന്നുപറയുമ്പോൾ പല സിനിമകളിൽ നിന്നും എടുത്ത നൃത്ത്യഗാനങ്ങൾ മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം എന്ന ഗാനം ഇന്ന് വളരേ കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് അതുപോലെതന്നെ സംഗീതങ്ങളും അതുപോലെ ക്ലാസ്സിക്കൽ സംഗീതങ്ങളും അതുപോലെ വിവാഹ ദിനങ്ങളിൽ ആലപിക്കാൻ പറ്റിയ സംഗീതങ്ങളൊക്കെ ഇന്ന് വളരെ വളരെ ഉപയോഗിച്ചു വരുന്ന ഒന്ന് തന്നെയാണ്